മലബന്ധം മലബന്ധം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയും മലബന്ധം പലയാൾക്കും മലബന്ധം ഉണ്ടാവാറുണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ രണ്ടു ദിവസമായിട്ട് പുറത്തു പോകുന്നില്ല പോകുമ്പം നല്ലോണം ടൈറ്റായിട്ട് പോകുന്നു ഇത് പല കാരണം കൊണ്ടും സംഭവിക്കാം മെയിനായിട്ടും നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാതെ ഇരിക്കുമ്പോളും മലബന്ധം ഉണ്ടാകാറുണ്ട് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൽ നല്ലോണം ഇലക്കറികളും പച്ചക്കറികളും ഉൾപ്പെടുത്തണം ചെറിയ ചെറിയ നിത്യേന ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് മലബന്ധം തടയാൻ പറ്റും അല്ലാതെ പുറത്തുന്ന് കിട്ടുന്ന പൊറോട്ട ചിക്കൻ അത് പോലുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും മലബന്ധം ഉണ്ടാക്കാറുണ്ട് പിന്നെ നിത്യേന മരുന്നു കുടിക്കുന്നവരിലും എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും അസുഖം കൊണ്ട് നിത്യേന മരുന്നു കുടിക്കുന്നവരിലും ഇങ്ങനെ മലബന്ധം ഉണ്ടാകാറുണ്ട് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന നാട്ടുവൈദ്യം എന്നു പറഞ്ഞാൽ എന്താണ് എന്താണെന്ന് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്ത് കാരണം കൊണ്ട് ഈ മലബന്ധം ഉണ്ടാകുന്ന അങ്ങനത്തെ ഭക്ഷണപദാർത്ഥങ്ങൾ ഒഴിവാക്കുക അതല്ലാണ്ട് നമുക്ക് സാധാരണയായിട്ട് ചെയ്യാൻ പ പറ്റുന്നത് നിത്യേന ഒരു രണ്ട് പഴമോ ചെറിയ കദളി പഴമാണെങ്കിൽ രണ്ടു പഴം അല്ലെങ്കിൽ പഴം കഴിക്കാം കൂടാതെ ഉണക്കമുന്തിരി ചെറിയ ചെറിയ രീതിയിൽ ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്തിട്ട് നിത്യേന കഴിക്കാം അതുപോലെ നല്ലോണം വെള്ളം കുടിക്കാം ബദാമ് അങ്ങനത്തെ ഡ്രൈ ഫ്രൂട്സ് വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിക്കാം അത് അതൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളും കൂടുതലായിട്ട് കഴിക്കുക അങ്ങനെയൊക്കെ കഴിക്കുന്നത് കൊണ്ട് മലബന്ധത്തെ തടയാൻ പറ്റും അതുപോലെ തൈര് തൈര് തൈര് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഓ തൈര് ഒക്കെ കഴിച്ചാൽ കൊളസ്ട്രോള് വരില്ലേ കൊളസ്ട്രോള് വരുന്നതല്ലേ നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകൾ വേണം നല്ല ബാക്ടീരിയകൾ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ പുളിപ്പുള്ള തൈര് അങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചേ പറ്റൂ അതുകൊണ്ട് തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ മാം ഇറച്ചി മാംസം അങ്ങനെയുള്ള ഭക്ഷണം പൂർണ്ണം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പൂർണ്ണമായി ഒഴിവാക്കാന്നല്ല നിത്യേന കഴിക്കാതിരിക്കുക കഴിക്കാം എന്നും ഡെയിലി അതുതന്നെ കഴിക്കാതിരിക്കുക അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ നല്ല നല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ള വസ്തുക്കൾ നിത്യവും ഉപയോഗിക്കുക കൂടുതലും വെള്ളം കുടിക്കുക ഇതു തന്നെയാണ് മെയിനായിട്ടും പറയേണ്ടത് വെള്ളത്തിൻ്റെ കുറവു കൊണ്ടും അത് സംഭവിക്കും ഇപ്പോൾ നല്ല വെയിലത്ത് പോകുന്ന ഒരാൾക്ക് നല്ലോണം ശരീരത്തിൽ നിന്നും വെള്ളം പോകുന്നുണ്ട് അപ്പം ആ വെള്ളം പോയതിനനുസരിച്ച് അവർ കുടിക്കാതിരിക്കുമ്പം വെള്ളത്തിൻ്റെ കുറവുണ്ടാവും അങ്ങനെ കുറവ് വരുമ്പോഴും മലബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം മാക്സിമം മലബന്ധം വരാതിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇലക്കറികൾ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇലക്കറികൾ ഉൾപ്പെടുത്തുന്നത് കൊണ്ടും നാര് നാര് പോലുള്ള ഭക്ഷണം കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട്

ഡൈജഷൻ സമയത്ത് നല്ല വൃത്തിയിൽ മലം പോവാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുന്ന് അതുകൊണ്ട് നല്ലോണം എലക്കറികൾ ഉപയോഗിക്കുക നല്ലോണം വെള്ളം കുടിക്കുക ഇതുതന്നെയാണ് മലബന്ധത്തിന് മെയിനായിട്ടും നമ്മൾ നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ